എൻ്റെ വീടെന്ന് പറയുന്നത് കുമാരകത്താണ് അപ്പോള് ടൂറിസത്തിന് വളരെയധികം സാധ്യതയുള്ള ടൂറിസം വളരെ നന്നായിട്ട് കൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ് കുമരകമെന്ന് പറയുന്നത് വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരു പാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ടൂറിസം ഈ സമീപ വർഷങ്ങളില് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലൊക്കെ കോവിഡിൻ്റെ ഒരു കോവിഡ് നയൻറ്റീൻ അസുഖം എല്ലായിടത്തും ഉണ്ടായിരുന്നത് കൊണ്ട് ആ വർഷങ്ങളിലെ ടൂറിസം വളരെ ആ മേഖല വളരെ ശുഷ്ക്കിച്ച് പോയിരുന്നു അപ്പോള് അതായത് ആ സമയത്ത് യാത്രാ ലംഘനങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയാണത് ഒരുപാട് അനുഭവിച്ച ഒരു മേഖലയെന്ന് പറയുന്നത് ടൂറിസമാണ് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെല്ലാം വളരെ കുറവായിരുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ച് കിടക്കുകയായിരുന്നു റിസോർട്ടുകളെല്ലാം കുറേ വർ കുറേ നാള് വെറുതെ കിടക്കുകയായിരുന്നു പിന്നീട് ഇപ്പോള് വീണ്ടും എല്ലാം റിസോർട്ടുകളും ഹോം സ്റ്റേകളും എല്ലാം പൂർവ്വാധികം ശക്തിയോടെ തന്നെ അവരുടെ

അപ്പോള് പ്രത്യേകിച്ച് ഞങ്ങളുടെ സമീപ പ്രദേശത്ത് ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുന്നൊരു ഈ തരത്തിലുള്ള ടൂറിസമാണ് ഞങ്ങളുടെ പഞ്ചായത്ത് നടപ്പിലാക്കിയിരിക്കുന്നത് അതായത് കുമരകത്ത് തന്നെയുള്ള ആളുകൾക്ക് കൂടുതൽ ജോലി പ്രദാനം ചെയ്തത് കൊണ്ടുള്ള ഒരു ഒരു ടൂറിസം പദ്ധതി അതുപോലെ തന്നെ ഇവിടുത്തെ കുമകരത്ത് പണ്ട് കാലം മുതലുള്ള ഈ എന്താ പറയുക നെയ്ത് അല്ലെങ്കില് മീൻ പിടുത്തം അവിടെ മീൻ പിടുത്തം ഒരു ഒരു പ്രധാനപ്പെട്ട ജീവന മാർഗ്ഗമാണ് കുമരകംകാർക്ക് ഓ വെള്ളക്ക് പോകുകയെന്നാണ് പറയുന്നത് അപ്പോള് വെള്ളയ്ക്ക് പോകുന്നവര് അതുപോലെ തന്നെ ഒരുപാട് വഞ്ചികളും വള്ളങ്ങളും തോണികളൊക്കെയുള്ള സ്ഥലമാണ് അപ്പോള് അങ്ങനെ വള്ളം ഉള്ളവര് അല്ലെങ്കില് പായ നെയ്യുന്നവര് അതുപോലെ തന്നെ ഓല മെടയുന്നവര് അങ്ങനെയുള്ള പരമ്പരാഗതമായ കാര്യങ്ങളിപ്പോഴും ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോള് അവർക്കൊക്കെ ഒരു വരുമാനമാർഗ്ഗം കൂടെയാണീ ഉത്തരവാദിത്ത ടൂറിസമെന്ന് പറയുന്നത് ഇപ്പോള് അവരേക്കെ അവരുടേക്കെടുത്ത് ടൂറിസ്റ്റുകളെ കൊണ്ടുചെന്ന് അവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണിച്ച് കൊടുക്കുകയും അതിന് അവർക്ക് ഒരു ഒരു ചെറിയൊരു ഫീസ് നൽകുകയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോള് ആ ഒരു ഉത്തരവാദിത്ത ടൂറിസം എന്ന പദ്ധതി കൊണ്ട് കുമരകത്തെ നാട്ടുകാർക്കൊരുപാട് ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സമീപ വർഷങ്ങളില് എല്ലാം ഇപ്പോള് കോവിഡിന് ശേഷം ഇപ്പോള് രണ്ട് വർഷമായിട്ട് വളരെ നന്നായിട്ട് തന്നെ ടൂറിസം മേഖല വികസിക്കാണ് ചെയ്തിട്ടുള്ളത് സമൂഹത്തെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അത് ബാധിക്കുന്നത് ബാധിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് സമൂഹത്തിനകത്ത് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് ഒരുപാട് പേർക്ക് ജോലിയും കാര്യങ്ങളും വരുമാന മാർഗ്ഗങ്ങളും ഒക്കെയാണ് ടൂറിസം മേഖല നൽകുന്നത്